എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്നു വച്ചാൽ ഓരോ കുട്ടിക്കും അവരുടെ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ സ്കോളർഷിപ്പുകളും കാര്യങ്ങളുമൊക്കെ അതിലേക്കാണ് വരാനുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തങ്ങളുടെ പഠിപ്പിനാവശ്യമായ സ്കോളർഷിപ്പും കാര്യങ്ങളുമൊക്കെ തന്നെ തങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ അവർ സേവിങ്ങ് അക്കൗണ്ട് തുടങ്ങുന്നത് വളരെ വളരെ നല്ലതാണ് പിന്നെ അവരുടെ കൊച്ച് കൊച്ച് സമ്പാദ്യങ്ങൾ ശേഖരിച്ചു വെയ്ക്കുവാനും എല്ലാത്തിനും അക്കൗണ്ട് വളരെ ഉപകാരപ്രദം പ്രദം പെടും കാരണം അവർ പലിശയും തരുന്നതാണ് ഈ അക്കൗണ്ടുകൾക്കും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇതിൻറ്റെ പ്രധാനമായുള്ള ഗുണങ്ങൾ ഇതൊക്കെത്തന്നെയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോളാ മൈനറിൽ നിന്നും മേജർ ആക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഒരു സാധാ അക്കൗണ്ടായി മാറുകയും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഈ അക്കൗണ്ടിൻറ്റെ എ ടി എം കാര്യങ്ങളുമൊക്കെ മാതാപിതാക്കളുപയോഗിക്കണമെന്നും അവരുടെ മേൽനോട്ടത്തിൽ ആയിരിക്കണമെന്നുമാണ് എന്റെയൊരു പ്രത്യേക അഭിപ്രായമുള്ളത് അവരുടെ തന്നെ ഒരു സേവിങ്ങ് അക്കൗണ്ട് ഉണ്ടാക്കാനായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചിലപ്പോൾ അവർ അവർക്ക് തന്നെ തോന്നാറുമുണ്ട് ഇതിൻറ്റേയും പിന്നെയുള്ളൊരു ഗുണങ്ങൾ എന്താണെന്ന് വച്ചാൽ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ വല്ല പൈസയും ഇട്ട് കൊടുത്ത് അവരെ രക്ഷിക്കാനും പറ്റുന്നതാണ് കാരണം എവിടെയെങ്കിലും ബസില്ലാതെയോ പൈസയില്ലാതെയോ കുടുങ്ങി പോയാലോ എവിടെയെങ്കിലും തങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടാലൊക്കെത്തന്നെ ഇപ്പം എല്ലാം യു പി ഐ ട്രാന്സാക്ഷൻസായത് കൊണ്ട് അവർക്ക് ഒരു സേവിങ്ങ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് അവരുടെ ആവശ്യങ്ങൾക്കുള്ള പണം അവർ കണ്ടെത്തി ചിലപ്പോൾ അതിൽ നിക്ഷേപിച്ചാലും അത് മാതാപിതാക്കൾക്ക് വളരെ വലിയൊരു ഉപകാരമായേക്കും